ഹലോ ആ വാസന്ത് വിഹാർ വാസന്ത് വിഹാർ അല്ലേ ആ നമുക്ക് ഇപ്പം അവിടെ തിരക്കുണ്ടോ ഇപ്പം നമുക്ക് കുറച്ച് മസാല ദോശ വേണം

ആ സ്പെഷ്യൽ സ്പെഷ്യൽ മസാല തന്നെ ആയിക്കോട്ടെ ആ അതിന് എത്ര ആ നമുക്ക് പത്ത് എണ്ണം വേണം ആ അത് പാർസല് നീ ആ നമ്മളടുത്തേക്ക് എത്തിക്കുമോ വീട്ടിലേക്ക് മഞ്ഞിപ്പാടി ജുമാ ജുമാഅത്തിന് ഇപ്പുറം ആ അത് കൊടുക്കാം കൊടുക്കാം എത്ര മസാലദോശക്ക് എത്രയാണ് റേറ്റ് ആ ആ ആ നൂറുപ്യ അത് ഭയങ്കര റേറ്റ് ആയി പോയല്ലപ്പാ അത് ആ ആ

അതെയോ അതെയോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏത് ആയാലും സാധനം നല്ലത് ആകണം ആ ആ അപ്പം നമുക്ക് നമുക്ക് കുറച്ച് വേറെ വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ വേറെ എന്തുണ്ട് ആ ആ ആ ആ

ആ ആ അതെയോ ആ ഇപ്പം ആ ഇപ്പോൾ ഞമക്ക് നാളേക്ക് ആ വൈകുന്നേരം മതി വൈകുന്നേരം ആ ആ ആ ആ വിളി ആ ആ ആ വിളിക്കാം വിളിക്കാം ശരി ശരി